ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം ഉണ്ട് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഓൺലൈന് വഴിയാണ് കൂടുതലായിട്ട് ആൾക്കാർ അതായത് ഓരോ വാർത്തകളൊക്കെ അറിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോഴെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വഴി അല്ലാണ്ടും നമുക്ക് ഫോണ് വഴിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും പിന്നെ ഇപ്പോൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും വേറെ ആരെങ്കിലും ഇപ്പം അവരെ കാണും അപ്പോൾ അവർ പറയും ആ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പോലെ നടന്നിട്ടുണ്ട് അങ്ങനെ ഒക്കെ അറിയുന്ന നമ്മളിപ്പോൾ അതായത് നമ്മൾ നല്ല രീതിയിലുള്ള സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടേ വേണമെങ്കിൽ അറിയാൻ വേണ്ടി സാധിപ്പിക്കും കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് പലരീതിയിലും ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം അവരോട് നമ്മളിപ്പം എന്തെങ്കിലും പോയി ഒരു സംസാരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളോട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അപ്പം പല രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മംഗളം ഉണ്ട് മനോരമ മാതൃഭൂമി പിന്നെ അങ്ങനെ പല രീതിയിലുള്ള പത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ അറിയാൻ പറ്റും